നമ്മളുടെ പ്രദേശം എന്ന് പറയുന്നത് ഒരു വയലും പ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന പക്ഷികള് കാക്ക തത്ത മൈന ചെമ്പോത്ത് മരംകൊത്തി പ്രാവ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത് പിന്നെന്നു വെച്ചാൽ എനിക്ക് നിരീക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി കാക്കയാണ് കാരണമെന്ന് വെച്ചാൽ കാക്ക എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകും പിന്നെ കാക്കയമ്മ എല്ലാ ഭക്ഷ്യവസ്തുക്കളും കാക്ക കഴിച്ചോളും ഇപ്പം നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും അല്ലേൽ നമ്മളുണ്ടാക്കിയ ഇപ്പം രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ബാക്കിയാണെങ്കിലും ചോറാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ കാക്ക കഴിച്ചോളും അപ്പോൾ എന്ന് വെച്ചാൽ അത് ഇപ്പം ദോശ കഴിക്കുന്നതും പിന്നെ മീൻ കഴിക്കുന്നതുമൊക്കെ വ്യത്യസ്ത രീതിയിൽ ആയിട്ട് എനക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം കൂടുതല് കാക്ക നെ നിരീക്ഷിക്കാനാണ് പിന്നെ എന്തെങ്കിലും ഒരു പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി അതിലൂടെ പോവുകയാണെങ്കിൽ കാക്ക പ്രത്യേക തരത്തിലുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ കാക്കനെ ഒരു എപ്പോഴും കാക്കേനെ നിരീക്ഷിച്ച് അതിൻ്റെ ഒരു മാറ്റങ്ങള് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് കാക്ക ഈ കൂട് കൂട്ടാൻ വേണ്ടിട്ട് ഓരോ കമ്പുകളൊക്കെ കൊണ്ടുപോകുന്നതും ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ് പിന്നെ കൂടുതലായിട്ട് കാക്ക നമ്മുടെ വീട്ടുമുട്ടത്തുള്ളത് കൊണ്ട് തന്നെ എനക്ക് കാക്കയെ നിരീക്ഷിക്കാനാണ് കൂടുതൽ ഇഷ്ടവും